അപ്പം ഞാനിപ്പോൾ പറയാൻ പോവുന്നത് എൻ്റെ മൊബൈൽ ഫോണിനെ പറ്റിയാണ് അപ്പം ഞാൻ പത്താംക്ലാസിൽ വെച്ചാണ് ഈ ഫോൺ മേടിക്കുന്നത് ഇപ്പോൾ ഞാൻ മൂന്നുവർഷമായിട്ട് ഇത് യൂസ് ചെയ്യുന്നു ഇതിന്റെ പോസിറ്റീവ്സ് പറയുവാണെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ ഭയങ്കര ഇഷ്ടമാണ് സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിനുവരുന്നത് പിന്നെ ഇതിന്റെ ഫ്രെയിം വരുന്നത് പ്ലാസ്റ്റിക്ക് ആണ് ബാക്ക് ഗ്ലാസ് ബിൽഡ് ആണ് പിന്നെ ഫിംഗർപ്രിൻറ് സെൻസർ സൈഡ് മൗണ്ട് ഫിംഗർപ്രിന്റ് ആയിട്ടാണ് വരുന്നത് പിന്നെ സ്നാപ്ഡ്രാഗൺ സെവൻ തേർട്ടി ജിയുടെ ക്വാഡ്കോം പ്രോസസ്സർ ഉണ്ട് ഫോർ നാനോമീറ്റർ പ്രോസസ്സർ ആണ് പിന്നെ അറുപത്തിനാല് എം ബിയുടെ ക്യാമറ പിന്നെ എട്ട് എം ബിയുടെ അൾട്രാ വൈഡ് അഞ്ച് എം ബിയുടെ മാക്രോ ഇതെല്ലാമാണ് മെയിൻ ബാക്ക് ക്യാമറ വരുന്നത് പിന്നെ പതിനാറ് എം ബിയുടെ സെൽഫി ക്യാമറ ഉണ്ട് ആഹ് പിന്നെ ഇതിൻ്റെ ക്യാമറ പെർഫോമൻസ് എന്നുപറയുന്നത് ഫോട്ടോ അത്യാവശ്യം കുഴപ്പമില്ല വീഡിയോ ക്യാമറ ആണെങ്കിൽ സ്റ്റെബിലൈസേഷനും ഫോർ കെ തേർട്ടി എഫ് പി എസ് വരെ ഷൂട്ട് ചെയ്യാനും പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കളർ വരുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വിന്റേജ് ബ്രോൺസ് കളർ ആണ് പിന്നെ ആറ് ജി ബി റാം വൺ ട്വന്റി എയ്റ്റ് ജി ബി ഇൻ്റെർണൽ മെമ്മറി റോം എല്ലാം ഉണ്ടിതിന് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുവാണെങ്കിൽ ആറ് അല്ല മൂന്നര വർഷമായി ഇപ്പോൾ യൂസ് ചെയ്യുന്നു ഇതുവരെ കുഴപ്പമൊന്നുമില്ല നല്ല രീതിക്ക് പോകുന്നു വേറെ പറയുവാണെങ്കിൽ ഇതിൻ്റെ ഡിസ്പ്ലേ നൈസ് ആണ് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് പിന്നെ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട് പിന്നെ സ്റ്റീരിയോ മൈക്ക് റെക്കോർഡിങ് വരുന്നുണ്ട് അപ്പം മുകളിലും താഴത്തേ മൈക്കും കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ മുപ്പത്തിമൂന്ന് പവറിൻ്റെ ഫാസ്റ്റ് ചാർജർ സി ടൈപ്പ് ചാർജർ ആണ് ചാർജർ ഒക്കെ ആ പെട്ടിയുടെ കൂടെത്തന്നെ കിട്ടുന്നുണ്ട് പിന്നെ ഡ്യൂവൽ സിം ഇടാം എസ് ഡി കാർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ പറയുവാണെങ്കിൽ മൂന്ന് വർഷമായിട്ട് ഹാങ്ങും ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോവുന്നുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ